പൗരന്മാരെ സംരക്ഷിക്കേണ്ട സമൂഹത്തിൽ കൂടുതൽ പോലീസുകൾ കുറച്ചൂടെ ഉത്തരവാദിത്യപരമായി മുൻ ക്രമ സമാധനങ്ങൾ നിലനിർത്തുന്നതിന് അവർ അവരുടെ കാര്യങ്ങൾ അവരുടെ ഉത്തരവാദിത്യം വളരെ വലുതാണ് അപ്പം ഒന്ന് നമ്മുടെ സമൂഹത്തിൽ പോലീസുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഘടനകൾ കുറച്ചൂടെ ആക്ടിവായി പ്രവർത്തിപ്പിക്കണം രണ്ട് സ്കൂൾ തലങ്ങൾ മുതൽ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥികളെ അധ്യാപകർ അവർക്ക് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെയും അല്ലെങ്കിൽ മറ്റ് എല്ലാ ശക്തികളെ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് കുറ്റകൃത്യങ്ങൾ വർധിക്കാനുള്ള ഒരു പ്രധാന കാര്യങ്ങൾ ഇന്ന് വിദ്യാർഥികൾ സ്കൂൾ തലങ്ങൾ മുതലെ കുറ്റവാളികളായി മാറിക്കൊണ്ടിരിക്കുന്നത് ആണ് ഡ്രഗ്സ് മുതലായവയുടെ അടിമകളായിക്കൊണ്ടരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്കൂൾ തലങ്ങൾ എല്ലാം പോലീസുകാർക്ക് വിട്ടു കൊടുക്കാണ്ട് സ്കൂൾ തലങ്ങൾ മുതൽ വിദ്യാർത്ഥികളെ ഒന്ന് രൂപീകരിക്കണം അതുപോലെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും വാർഡടിസ്ഥാനത്തിലും എന്താണ് ഓരോ കുടുംബത്തിൽ നിന്ന് സംഭവിക്കേണ്ടത് എന്ന് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുകേം ചെയ്യണം